അതെ

അങ്ങനെ ഇപ്പോൾ ഓണപരീക്ഷയൊക്കെ അടുത്ത് വരുന്നത് ആയതുകൊണ്ടും അങ്ങനെ അവധി തരാൻ പറ്റില്ലല്ലോ ആ നോട്ട്സ് ഒക്കെ ഒരുപാട് ആ നോട്ട്സ് ഒക്കെ ഒരുപാട് ചെയ്യാനുണ്ട് ആ അപ്പോൾ അങ്ങനെ

ആ അങ്ങനെ അങ്ങനെ എല്ലാം തീരുമാനിച്ചോ ആ ആ ആ നേരത്തെ ലീവ് ലെറ്റർ വെച്ചേര് സമയം ആവുമ്പോഴത്തേക്ക് തരാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തരാം ആ ഓൺലൈൻ ക്ലാസ് ഒക്കെ ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുവാണ് ഇപ്പോൾ നേരിട്ട് വന്ന് വന്നാൽ മതി ഓൺലൈൻ ഒക്കെ നിർത്തി ടീച്ചേർസ് നോട്ട് ഒക്കെ ആ ടീച്ചേർസ് നേർ ആ ആ വരുമ്പം മറ്റുള്ള പിള്ളേരുടെ നോക്കി എഴുതണം ഓ ഫോണിലൊന്നും ഇട്ട് തരാനുള്ള സൗകര്യം ഒന്നും ഇപ്പോൾ ഇല്ല ഫോൺ ഒക്കെ പിള്ളേർ ദുരുപയോഗം ചെയ്യുന്നതുകൊണ്ട് ഫോൺ ഒക്കെ വേണ്ട എന്ന് വെച്ചു നിർത്തി വെച്ചിരിക്കുവാണ് ഫോണിൻ്റെ കഴിഞ്ഞ ദിവസം ഇല്ല നേരിട്ട് വന്ന് തന്നെങ്കിലേ പറ്റുള്ളൂ നേരത്തെ തന്നെ ലീവ് ആപ്ലിക്കേഷൻ നേരത്തെ തരണം പൊവുന്നതിന് തലേദിവസം പൊവുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും കൊണ്ട് തന്നാൽ മതി സൗകര്യം പോലെ ആ അതെ അതെ റൈറ്റ് ഓക്കെ തീർന്നോ ഉഫ്